ഹലോ ആ ഞാൻ നിങ്ങളെ പിന്നെ കുട്ടിയുടെ എച് എം ആണ് സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ സ്പോർട്സ് ഡേ സ്പോർട്സ് മീറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങളെ കുട്ടിയെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം അപ്പോൾ അതിനൊരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത് പഠിത്തത്തിൽ അപ്പോൾ അത് കൊടുത്തങ്ങ് ബാക്കി കുട്ടി ബാക്കി കുട്ടികളെ കൊടുത്തിട്ടുണ്ട് കുറച്ചു ആളുകൂടി വേണം അപ്പോൾ അപ്പോൾ പഠിക്കാനൊക്കെ അവൻ വലിയ കുഴപ്പമില്ല കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ സ്പോർട്സിൽ കുറച്ച് ഒരു കഴിവ് കാണുന്നുണ്ട് കുട്ടിക്ക്

അതെ എല്ലാം എല്ലാം കൊണ്ടു പോകണം നമ്മളെ അതായത് എല്ലാം പഠിപ്പും അതായത് ഇത് സ്പോർട്സും എല്ലാം ഒരുമിച്ചു കൊണ്ടുപോകാൻ പറ്റണം അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു പ്രോത്സാഹനം പാരെൻസ് എന്ന നിലയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സപ്പോർട്ട് കുറച്ചുകൂടി ഇത് ആക്കിയിട്ട് കൊടുത്തിട്ട് സ്പോർട്സിൽ കുറച്ചും കൂടി പഠിത്തത്തിൻ്റെ കാര്യം വിട്ടിട്ടല്ല ഉഴപ്പിയിട്ടല്ല രണ്ടും കൂടിയിട്ടൊന്നു അപ്പോൾ നമ്മളെ സ്കൂളിൽ പഠിക്കാനൊക്കെ ആ അത്യാവശ്യം നല്ല പഠിക്കാനൊക്കെ പഠിക്കാനൊക്കെ അത്യാവശ്യം ആവറേജ് കുഴപ്പമൊന്നുമില്ല അവൻ അത്യവശ്യം പറഞ്ഞതൊക്കെ മനസിലാകുന്നുണ്ട് പിന്നെ അത് അത് ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും അത് കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ഒന്നു നിങ്ങളെ ഒരു ഇത് ചോദിച്ചിട്ട് പറയാമെന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ ഒന്ന് നിങ്ങൾ അത് ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് നിങ്ങൾ ഒരു ഓക്കേ ഒക്കെ അപ്പോൾ ശരിയെ